എന്റെ ഫോൺ നമുക്കറിയാം എല്ലാവർക്കും മൊബൈൽ ഫോൺ വരി വലിയ രീതിയിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ആരും പറയില്ല പക്ഷേ എങ്കിൽപോലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം ഇതെന്ന് പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ആൺട്രോയിഡ് ഫോൺ ആണ് പക്ഷെ ഹീറ്റിങ് ഭയങ്കര ഹീറ്റിങ്ങാണ് ഫസ്റ്റഫോൾ പിന്നെ നമ്മുടെ ഹാൻഡ് ഒക്കെ ഒരു ഒരു മുക്കാൽ മണിക്കൂർ നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിയുമ്പോൾതന്നെ നന്നായിട്ട് നമുക്ക് ഭയങ്കരമായി കയ്യൊക്കെ വേദനയെടുക്കാൻ തുടങ്ങും ഈ ചൂടിന്റെയായിരിക്കും ഭയങ്കര റേഡിയേഷനാണ് പിന്നെ പറയുകയാണെങ്കിൽ ക്യാമറ ക്യാമറ കാര്യം പറഞ്ഞാൽ തൃബിൾ ക്യാമറയുണ്ട് പക്ഷേ ഈ തൃബിൾ ക്യാമറ കൊണ്ടും യാതൊരു ഗുണവും ഒരു ഒരു നല്ല ക്ലാരിറ്റിയോ ഒന്ന് സൂം ചെയ്താൽ അതിന്റെ ക്ലാരിറ്റി ഒന്നുംകൂടി പോകും ഒരു രീതിയിലുള്ള ഫിൽറ്ററോ ക്ലാരിഫിക്കേഷൻസോ ഒന്നും ഇല്ലാത്ത ബ്ലർനെസായിട്ടുള്ള ഒരു ക്യാമറ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ബാക്ക് ക്യാമറ ആണെങ്കിലും ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് രണ്ട് രീതിയിലും വലിയ ഇതൊന്നും എനിക്ക് രണ്ട് ഫോണിൽനിന്നും ഈ ഫോണിൽനിന്ന് കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് മറ്റൊരു ഫോൺ കൂടിയുണ്ട് പക്ഷെ ഇതും ഇത് തന്നെ സെയിം ഇത് തന്നെയാണ് അതും ഇതുപോലെതന്നെ പക്ഷേ ഒരു ഒരു തേർട്ടീ കെ അടുത്ത് ഞാൻ മുതൽ മുടക്കിയ ഒരു പ്രൊഡക്റ്റാണത് പക്ഷേ അയാം വെരി ഡിസെപ്പോയന്റെഡ് ബികോസ് തീരെ നമുക്ക് ഉൾക്കൊളളാൻ സാധിക്കത്തില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ്സ് തന്നെയാണ് പിന്നെ സ്റ്റോറേജിന്റെ കാര്യം പറയാണെങ്കിൽ സിക്സ് ജി ബി റാം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന് പക്ഷേ ഫോർ ജി ബി റാമെ ഉണ്ടായിരിന്നു ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിവേയ്സ് പക്ഷേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിന്റെ ക്ലാരിഫിക്കേഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ തെറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് സിക്സ് ജി ബി റാമുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഫോർ ജീ ബി യെ ഉളളൂ പിന്നെ നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി സ്റ്റോറേജുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതില്ലാ അറുപത്തിനാല് ജി ബി യെ ഉളളൂ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടന്നോയെന്ന് ചോദിച്ചാൽ തട്ടിപ്പുകളും ഇതിന്റെ കൂടെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നതു ബികോസ് തേർട്ടി കെ കൊടുത്ത് വാങ്ങിച്ച ഒരു ഫോണിന് ഇത്രയും കുറഞ്ഞ നിലവാരം ആയി പോകുന്നതിനോടെനിക്ക് തീരെ താല്പര്യമില്ല പിന്നെ പറയാണെങ്കിൽ സ്റ്റോറേജ് ക്യാമറ ഇതിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ അതാണേറ്റവും പ്രശ്നം അതിലിടുന്ന സിം കാർഡ് ആണെങ്കിലും അല്ലെങ്കിൽ വൈഫൈ ആണെങ്കിൽ പോലും ഭയങ്കര നെറ്റ്വർക്ക് പ്രോബ്ലാണ് ഇതുമായിട്ട് ഒട്ടും പിന്നെ പേ ഒരു പേറ്റിഎം ചെയ്യാൻപോലും അല്ലേ ഒരു ജീപേ ചെയ്യാൻ പോലുമുള്ള ഇതില്ലാ എപ്പോഴും സെർവർ ഡൌണാണ് ഡേറ്റ അൺഅവയിലബിളാണ് അങ്ങനെയൊക്കെ പറയുന്ന പല പ്രാവശ്യങ്ങളിൽ റേ ഏറോപ്ലെയിൻ മോഡ് ഓണാക്കി ഓഫാക്കി ഓണാക്കി ഓഫാക്കി ഒക്കെ ആണ് നമ്മാൾ ഡേറ്റ തിരിച്ചു കൊണ്ടുവരുന്നത് അതും എച്ച് പ്ലസാണ് എക്സ് പ്ലസ് എച്ചാണ് കിട്ടാറ് എച്ച്പ്ലസ് പോലും കിട്ടാറില്ല ഒരു എന്താപറയാ നമ്മൾ സത്യം പറഞ്ഞാൽ എ ഫോൺ തകർക്കാൻ തോന്നും ആ രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് എനിവേയ്സ് ഒരു രീതിയിലും എനിക്ക് ഉൾക്കൊളളാൻ സാധിക്കത്തില്ലാത്ത പല കാര്യങ്ങളും എന്റെ ഈ ഒരു ഫോൺ കാരണം ഉണ്ടായിട്ടുണ്ട് ഇതെവിടെയെങ്കിലും ഒന്നു പറയണം തോന്നിയായിരുന്നു ഇതൊരു നല്ല അവസരമായിട്ട് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത് ഗുഡ് ലക്ക്